ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ചിക്കൻ എന്താ കോഴി തന്നെ ഇവിടെ വീട്ടിൽ വളർത്തിയ കോഴി തന്നെയായിരുന്നു പിന്നെ അതിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വീട്ടിൽ നിന്നു തന്നെയായിരുന്നു തക്കാളി ഞാൻ നട്ടു വളർത്തിയ നല്ല നാടൻ തക്കാളി ആയിരുന്നു അതുപോലെതന്നെ പച്ചമുളക് അതിന് വേണ്ടിയുള്ള കറിവേപ്പില എല്ലാം വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇപ്പോൾ കാണുകയാണെങ്കിൽ എന്താ ചിക്കൻ കറിക്കും എല്ലാ കറികൾക്കും പുറത്ത് നിന്ന് തക്കാളി കറിവേപ്പില പച്ചമുളക് എന്നിവ എന്നുള്ള സാധനങ്ങളൊക്കെയാണ് മേടിക്കുന്നത് അതുവച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽത്തന്നെ നട്ടു വളർത്തിയ തക്കാളി പച്ചമുളക് കറിവേപ്പില അങ്ങിനെയുള്ള ഓരോ സാധനങ്ങളും എൻ്റെ വീട്ടിത്തന്നെ ഉള്ളതായിരുന്നു ഞാന് എന്താ ഈ നാടൻ ഈ തനിനാടൻ കോഴിക്കറിക്കു വേണ്ടി ഉപയോഗിച്ചത് അതെ ഈ കോഴിക്കറി നമ്മുടെ വീട്ടിൽത്തന്നെ ഉള്ളതുകൊണ്ട് ആയതുകൊണ്ട് നല്ല നല്ല രുചികരമായ ഒരു കറിയായിരുന്നു

നമുക്ക് അത്ര ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല നമുക്ക് എവിടെയെങ്കിലും വച്ചാൽ തന്നെ പെട്ടന്ന് ചീത്തയാകും ഒക്കെ ചെയ്യും അതുപോലെ ഇപ്പോൾ എൻ്റെ വീട്ടിൽതന്നെ ഉള്ള കോഴി ആയതുകൊണ്ട് ഈ വീട്ടിൽതന്നെ ഉള്ള കോഴി ആയതുകൊണ്ട് നല്ല രുചി നമ്മുടെ എന്താ ഇവിടെ തന്നെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അതിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു കോഴിയായിരുന്നു കറി വച്ചപ്പോൾ ആണെങ്കിലും നല്ല രുചികരമായ ഒരു കോഴിക്കറി ആയിരുന്നു ഇതിനു വേണ്ടി ഇപ്പോൾ ഗരം മസാലപ്പൊടികളൊക്കെ ആയാലും എന്താ ചുക്ക് ചുക്ക് ഏലയ്ക്ക കുരുമുളകുപൊടി അങ്ങനത്തെ എല്ലാം അങ്ങനത്തെ കുറേ കുറേ പൊടി ഈ പൊടിക്ക് വേണ്ടി അങ്ങനെ കുറേ കറുവപ്പട്ട കുരുമുളക് പൊടി അതൊക്കെ പിന്നെ എൻ്റെ അങ്ങനെ കുറേ സാധനങ്ങൾ ഈ മസാലയ്ക്കുവേണ്ടി ഇവിടെ തന്നെ ഇവിടെ തന്നെ വളർന്ന സാധനങ്ങളായിരുന്നു ആ മസാലപ്പൊടിക്കുവേണ്ടി ഇവിടെ തന്നെ ഞാൻ പൊടിച്ചതാണ് നമ്മുടെ ഇവിടെ തന്നെ മിക്സിയിൽ ഇട്ട് ഈ ഗരം മസാല ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പുറത്തുനിന്നു മേടിക്കുന്നതിനേക്കാളും നല്ലൊരു പൊടിയായിരുന്നു എന്താന്നു ചോദിച്ചാൽ പുറത്തു നിന്നു മേടിക്കുകയാണെങ്കിൽ അത് കേടാവാതിരിക്കാൻ പലതരം പൊടികളും സംഭവങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഈ കുരുമുളകും കുരുമുളകും ഏലയ്ക്കയും കറുവപ്പട്ടയും ഒക്കെ പൊടിച്ച ഈ ഗരം മസാല ഉണ്ടാക്കി ഈ കോഴിക്കറിയിൽ ചേർത്തതുകൊണ്ട് അത് നല്ല രുചികരവുമാണ് അതിലുപരി നമുക്ക് നമ്മുടെ ഹെൽത്തിന് അത്ര ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പുറത്തു നിന്ന് മേടിക്കുകയാണെങ്കിൽ കുറേ കുറേ എന്താ ചീത്ത ആയിട്ടുള്ള കുറേ സംഭവങ്ങള് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനു കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടുതന്നെ നമ്മുടെ ഇവിടെ ഇവിടെ നിന്ന് തന്നെയുള്ള തക്കാളി പച്ചമുളക് കറിവേപ്പില കോഴി ഗരം മസാല എള്ളും എല്ലാം ഇവിടെ നിന്ന് തന്നെ ഉള്ളതുകൊണ്ട് ആയതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനു ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും അതിലുപരി ഇവിടെ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഈ കറി നല്ല രുചികരമായ രീതിയിലായിരുന്നു ഇപ്പോൾ കടയിൽ നിന്നു മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കറിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ടേസ്റ്റിനു വേണ്ടി അവർ കുറേ സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ അതുവച്ചു നോക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ കൈകൊണ്ടു തന്നെ ഗരം മസാലപ്പൊടി അതുപോലെതന്നെ തക്കാളി എല്ലാം കൂടിയും ചേർത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ തന്നെ ഉണ്ടാകുമ്പോൾ അത്ര രുചികരമായതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എല്ലാം ആക്കുമ്പോൾ നമ്മുടെ കൈകൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ അത്രയും രുചികരവും നമുക്ക് സ്നേഹവും നിറഞ്ഞതുമായ ഒരു കറിയാണ്